എനിക്ക് മൃഗങ്ങളുമായിട്ട് അധികം കമ്പം മീൻസ് അധികം പരിചയമൊന്നും മൃഗങ്ങളെ വളർത്തിയോ അങ്ങനെ പരിചയമൊന്നും ഇല്ല എനിക്ക് മൃഗങ്ങളോട് അത്ര താൽപര്യവും ഇല്ല എന്നാലും മൃഗങ്ങളെയൊക്കെ വച്ചിട്ട് ഇങ്ങനെ ഓരോ ഇപ്പോള് നമുക്ക് കോഴിപ്പോരുതന്നെ എടുക്കാം ഒരു കോഴിയെ മറ്റേ കോഴിയെ അത്രയും അക്രമിച്ച് അതിനെ അവശനാക്കി അതിനെ കൊല്ലണത്തൊരു ഒരു കാര്യം നമ്മള് ആലോചിക്കുകയാണെങ്കില് അതും ഒരു ജീവനാണ് എന്താ പറയുക അപ്പോള് നമുക്കത് അത്രൊ രു ആസ്പെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എന്താണ് അതേപോലെ നമ്മള് വളരെ മോശമായിട്ട് ഉള്ളൊരു കാര്യമാണ് ഈ കോഴിപ്പോരൊക്കെ നടത്തുകയെന്നു വച്ചാല് എന്താ അതുപോലെതന്നെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ നമ്മുടെ ഈ തെലുങ്ക് സിനിമയിലും അതേപോലെ മലയാള സിനിമയില് തന്നെ ഉണ്ട് നമ്മളീ മൃഗബലി ഒക്കെ കഴിക്കുന്ന മൃഗബലി പറഞ്ഞാല് എന്താ ഓരോ ആടിനായിട്ടും കോഴിക്കായിട്ടും ഇപ്പോള് പോത്തിനായിട്ടൊക്കെ നമ്മള് എന്താ ദൈവങ്ങളെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഓരൊത് വേണ്ടി നമ്മള് അവയെ മൃഗങ്ങളെ കൊല്ലുന്നൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് അതിനോടൊന്നും എനിക്ക് താല്പര്യം യിട്ടില്ല ഇപ്പോള് ഈ മൃഗങ്ങളെ കൊണ്ട് ആയാല് ഈ കോഴികളെക്കൊണ്ടായാല് എന്തായാലും അവരുടെ ഉള്ളിലുള്ളൊരു ജീവനെ നിനപ്പിക്കുന്ന രീതിയിലുള്ളൊരു പരിപാടി എനിക്ക് ഇഷ്ടമല്ല പിന്നെ എനിക്ക് മൃഗങ്ങളോടൊന്നും അധികം കമ്പം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മൃഗങ്ങളെ പറ്റി ഒന്നും അറിയില്ല ഞാൻ ഇതുവരെ ഈ കോഴിപ്പോരോ അല്ലെങ്കില് ഈ കാളവണ്ടിയാട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല മ്യഗങ്ങള് അതുപോലെതന്നെ നമ്മള് ഈ തടിമില്ലുകളിലൊക്കെ ഈ ആനയെ കൊണ്ടൊക്കെ ജോലി എടുപ്പിക്കുന്ന ഞാന് കുറേ അങ്ങനെ കണ്ടിട്ടുണ്ട് അതിനൊടൊന്നും എനിക്ക് വലിയ താൽപര്യം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല ഈ ആനകളായാലും എന്തായാലും ജോലി എടുപ്പിക്കാന് പലരും ഇപ്പോള് പല പല മിഷീനുകളും കണ്ടുപിടിക്കുന്നുണ്ട് എന്താ അതുപോലെതന്നെ ഈ ആനകളെയൊക്ക വെടിച്ചിട്ട് ഈ മിഷീനുകൾ കൊണ്ട് പണി എടുപ്പിക്കുന്ന അല്ലെ നമുക്ക് ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നേ എനിക്ക് ഇപ്പോള് ഈ മൃഗങ്ങളെ കൊണ്ടുള്ള എല്ലാ പരിപാടികളും അവസാനിപ്പിക്കണം എന്നാണ് എൻ്റെ താൽപര്യം